ഹലോ ആരായിരുന്നു അതെ ആരാണ് സംസാരിക്കുന്നത്

നെഞ്ച് വേദന ആണോ എന്നാൽ മാറ്റമൊന്നുമില്ലേ ആണല്ലേ നെഞ്ച് വേദന എത്രനാളായി തുടങ്ങിയിട്ട് നിങ്ങളെവിടെയൊക്കെ കാണിച്ചു നിങ്ങളെവിടെയൊക്കെ കാണിച്ചു ആണല്ലേ അങ്ങനെയാണെങ്കിൽ എവിടെ കാണിക്കാനാണ് നമുക്ക് കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട് ഇപ്പോൾ നമ്മൾ കോഴിക്കോടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് മിംസ് ഉണ്ട് ആസ്റ്റർ മിംസ് ഉണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേബി മെമ്മോറിയൽ ഉണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് കോ ഇപ്പം അതായത് പ്രൈവറ്റ് ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നേൽ നമുക്ക് ഇത്രയും സ്ഥലങ്ങളൊക്കെയുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട് ആ നമുക്ക് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രഫസർമാർ ഒരുപാട് പ്രഫസർമാരുണ്ട് എല്ലാതരത്തിലുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പം എന്ത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യാം വേറെ പുറത്തൊന്നും പോകേണ്ട എല്ലാ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയുണ്ട് കോഴിക്കോട് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് വേണമെങ്കിൽ പ്രൈവറ്റ് ആണ് ഉദ്ദേശിക്കുന്നേൽ നമുക്ക് ബേബി മെമ്മോറിയൽ ഉണ്ട് ഇൻസാൽ അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽ തന്നെയാണ് നല്ല ചികിത്സ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണിക്കണേൽ നിങ്ങൾക്ക് അവിടെ കാണിക്കാം അല്ലേൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ നമുക്ക് ഇപ്പം മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ തിരക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഫസർമാരുടെ അതായത് മെഡിക്കൽ കോളേജിൽ തന്നെ നോക്കുന്ന പ്രൊഫസറുമാരുടെ നമ്പർ കിട്ടും അപ്പം നമുക്കവരുടെ വീട്ടിൽ നേരിട്ട് പോയിട്ട് ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ടാകും ഫീ അവിടെ പോയി നേരിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണേ അങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ കാണിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാൽ നമുക്ക് ബേബി മെമ്മോറിയൽ മിംസ് എങ്ങാനും നോക്കാം എന്നാണ് ഞാൻ അവിടെ അവിടെയുണ്ടാകും അവിടെ നല്ല അത്യാവശ്യം നല്ല എല്ലാ ഡോക്ടറും നല്ല ഡോക്ടർമാരാണ് ഞനെന്നാൽ അങ്ങനെയാണേൽ നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ അയച്ച് തരാം അപ്പം ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്താൽ മതി നമുക്ക് നൈറ്റ് ഒരു ഏഴു മണി തൊട്ട് എട്ടു മണി വരെയാണ് ബുക്കിങ് ടൈം അപ്പോൾ ബുക്ക് ചെയ്താൽ മതി അങ്ങനെയാണേൽ ഞാൻ അയച്ച് തരാം ആ ഓക്കെ ഓക്കെ